മിംസ് ഹോസ്പിറ്റൽ അല്ലെ ഡോക്ടറെ ഞാൻ ഇവിടുന്ന് വിളിക്കുന്ന ആയിരുന്നു പനി ആണ് രണ്ട് ദിവസമായിട്ട് ഓക്കെ അപ്പം ചുമ ഉണ്ട് ഇടവിട്ട് ചുമ ഉണ്ട് കഫക്കെട്ട് ഉണ്ട് പിന്നെ അതുപോല മേല് വേദന ഉണ്ട് ജലദോഷം തുടങ്ങീട്ട് ജലദോഷം രണ്ട് മൂന്ന് ദിവസം മുൻപ് തുടങ്ങിയായിരുന്നു പനി ഇപ്പം ഒരു രണ്ട് ദിവസമായി തുടങ്ങീട്ട് ഞാൻ പാരസെറ്റമോൾ ഒക്കെ കഴിച്ചിരുന്നു അല്ല ചെറിയ ചെറിയ പനി ഉണ്ടായിരുന്നുള്ളൂ അപ്പം സ്വന്തമായിട്ട് കഴിച്ചതാണ് ആ ജലദോഷം ഒരു നാല് ദിവസം ആയി തുടങ്ങീട്ട് ആവി ഒക്കെ പിടിക്കൽ ഉണ്ടായിരുന്നു തൊണ്ടവേദന ഇപ്പം ഇന്നലെ തൊട്ട് ചെറുതായിട്ട് ഉണ്ട്

പിന്നെ തലവേദന ഉണ്ട് പിന്നെ മേല് വേദന ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ടെംപറേച്ചർ ചെയ്തിട്ടില്ലല്ലൊ

ഓക്കെ

ഓക്കെ സാർ ഓക്കെ സാർ വേറെ ഇല്ല ഇടയ്ക്ക് ഉണ്ടല്ലൊ ഈ കഫക്കെട്ട് വരുന്ന ടൈമിൽ ഈ ശ്വാസം എടുക്കുമ്പം ചെറുതായിട്ട് ബുദ്ധിമുട്ട് ഉണ്ട് പിന്നെ രാത്രി സമയം ആ രാത്രി സമയങ്ങളിൽ ഇടവിട്ട് പനിയും ഉണ്ട് ഓക്കെ സാർ

ഓക്കെ സാർ ആ ആ അത് ഭക്ഷണം അങ്ങട് കഴിക്കാൻ പറ്റുന്നില്ല നല്ല വെള്ളം വെള്ളം കുടിക്കിന്ന ടൈമിൽ ഉണ്ട് ഓക്കെ സാർ ഓക്കെ